വിനോദ പരിപാടികളിൽ ഏറ്റവും കൂടുതല് ആളുകള് പങ്കെടുക്കുന്നതാണ് ഉത്സവങ്ങള് ഉത്സവങ്ങളില് കുറെ പരിപാടികളുണ്ടാവും കുറെ കച്ചവടങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കുറെ ആൾക്കാര് അന്ന് അ ഒരു സ്ഥലത്തായിരിക്കും പടക്കം പൊട്ടിക്കുന്നതും പൂത്തിരി കത്തിക്കുന്നതും കാണാനായിട്ടും ഒക്കെ കുറെ ആൾക്കാര് ഉത്സവത്തില് പങ്കെടുക്കും പിന്നെ മാത്രവല്ല പല പല ചെറിയ ചെറിയ കടകൾ ഒക്ക് ഉണ്ടാകും അതിൽ നിന്ന് സാധനങ്ങള് വാങ്ങാനും ഒക്കെയായിട്ട് ആൾക്കാര് കൂടുതല് ഉത്സവത്തിൽ പങ്കെടുക്കാറുണ്ട് ഉത്സവം എന്ന് പറയന്നത് പ്രദേശത്തെ ഒരു പ്രധാന പരിപാടിയാണ് പിന്നെ ഉള്ളത് സിനിമ ഈ ഇപ്പോൾ ഉള്ള തലമുറയില് പ്രധാനപ്പെട്ടത് സിനിമയാണെന്ന് പറയാം കാരണം ചലച്ചിത്രം എന്ന് പറയുന്നത് എല്ലാ യുവാക്കൾക്കും അല്ലെങ്കിൽ ഇന്നത്തെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ് ചലച്ചിത്രം എല്ലാ ദിവസവും ചലച്ചിത്രം കണ്ട് വെറുതെ പൈസ പോക്കുന്നവരും ഉണ്ടായിരിക്കും എങ്കിൽ കൂടിയും അവര് ഉദ്ദേശിക്കുന്നത് അ ഒരു സമയം അവർക്ക് സന്തോഷിക്കാം എന്നുള്ളത് മാത്രമാണ് വിനോദ പരിപാടികള് എപ്പോഴും നമുക്ക് സന്തോഷം തരുന്നുണ്ട് എങ്കിൽകൂടിയും അതിൻറ്റൊക്കെ പുറകിൽ എന്തൊക്കെ ഉണ്ടെന്ന് അല്ലെങ്കിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് എന്ന് ആരും ചിന്തിക്കുന്നില്ല വിനോദ പരിപാടികള് ഒരു പരിധി വരെ എല്ലാവർക്കും സന്തോഷം തരുന്നതാണ് സിനിമ കാണാൻ പോകുക ഉത്സവത്തില് പങ്കെടുക്കുക പിന്നെ പാട്ട് ഒരുവായുകളുണ്ടാക്കുക പല ഗായകമാര് വന്നിട്ട് അല്ലെങ്കിൽ ഗായികമാര് ഗായകന്മാരൊക്കെ വന്നിട്ട് അവരുടെ സ്വന്തം പാട്ട് അവതരിപ്പിച്ചിട്ട് ആൾക്കാരെ സന്തോഷിപ്പിക്കുക ഇപ്പോൾ കൂടുതല് മാധ്യമങ്ങളില് കാണുന്ന ഒരു പ്രവണതയാണ്